ആ ഇവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രദേശത്ത് വെള്ളം എടുക്കാൻ ചെറിയ തോടുകളും കിണറും പുഴയും ഒക്കെയുണ്ട് പിന്നെ വയലിലൊക്കെ ആണെങ്കിൽ ചെറിയ ഇങ്ങനെ ചിറ പോലെ കെട്ടിയിട്ടുണ്ട് അതിനകത്തുനിന്ന് പൈപ്പിട്ടിട്ടോ കോരിയോ ഒക്കെയാണ് കൃഷിയാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പിന്നെ ചെറിയ കൈത്തോടുകളുണ്ട് ചെറിയ കൈത്തോടുകൾ പിന്നെ പുഴകളുണ്ട് ഒരുപാട് പുഴകളും തോടുകളും ചെറിയ അരുവികളും ചിറകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഞങ്ങളുടേത് അതുകൊണ്ട് കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വെള്ളത്തിനൊന്നും ചൂട് കാലത്താണെങ്കിൽ പോലും വലിയൊരു ബുദ്ധിമുട്ടില്ല കാരണം കാര്യങ്ങളൊക്കെ ഇതൊക്കെയുള്ളതുകൊണ്ട് അതിനകത്തുനിന്ന് വെള്ളമെടുത്ത് വെള്ളമൊക്കെ എടുക്കാനും കോരി ഒഴിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് പിന്നെ പഞ്ചായത്തിൽനിന്നുള്ള വെള്ളങ്ങൾ ആവശ്യമുള്ളവർക്ക് പഞ്ചായത്തിൽനിന്നുള്ള ജല സംഭരണികൾ കുറച്ച് പേർക്കായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിനകത്തുനിന്നൊക്കെ വെള്ളമെടുക്കാം കുഴപ്പമൊന്നും ഇല്ല ആവശ്യത്തിന് കൃഷി ആവശ്യത്തിനുള്ള വെള്ളങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് പോവുന്നത് വയലിലാണേൽ ചിറ കെട്ടിയതുകൊണ്ട് ചിറയിൽനിന്ന് വെള്ളം നേരിട്ട് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്